കേരളത്തിൽ എല്ലാവരും പിന്തുടരുന്ന കായിക വിനോദം എന്ന് പറയണത് ക്രിക്കറ്റാണ് ഈ ഫുട്ബോൾ അതേപോലെ വോളിബോൾ ബാറ്റ്മിണ്ടൻ ടെന്നീസ് ഇതൊക്കെ കളിക്കാറുണ്ട് എല്ലാരും കളിക്കാറുണ്ട് അതേപോലെ കുട്ടികളാണെങ്കിലും പ്രായഭേദമന്യേ എല്ലാവരും ക്രിക്കറ്റ് കളിക്കാറുള്ളവരാണ് അതേപോലെ ഫുട്ബോളും കളിക്കാറുള്ളതാണ് പിന്നെ നാട്ടിലൊക്കെ പറയുമ്പോൾ എല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ വൈകുന്നേരത്ത് പോണ കാണാം അതേപോലെ ഫുട്ബോളാണെങ്കിലും കളിക്കുന്നവരാണ് അപ്പോൾ അതിപ്പോൾ ഈ ഫുട്ബോളിപ്പോൾ പറമ്പിൽ പോയി കളിക്കണവരുണ്ട് അതേപോലെ ടർഫ് പോലുള്ള ഇൻഡോറിൽ കളിക്കണതും ഉണ്ട് ക്രിക്കറ്റും അതേപോലെ നമ്മൾ ടർഫിലൊക്കെ പോയി കളിക്കാറുണ്ട് ഈ ടെന്നീസ് ഒക്കെ കൂടുതലും ടൗൺ ഏരിയയിൽ ഉള്ളവരൊക്കെയാണ് കളിക്കാറ് ടെന്നീസാണെങ്കിൽ ബാഡ്മിൻറൺ കളിക്കാറുണ്ട് കൂടുതലും ടൗൺ ഏരിയയിലുള്ള ആൾക്കാരൊക്കെയാണ് ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞവർ നൈറ്റ് വന്ന് കളിക്കണ കാണാം വിനോദത്തിന് വേണ്ടിയിട്ട് ഫുട്ബോൾ പിന്നെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാവും ഓരോ ക്ലബ്ബ് ഓരോ സ്ഥലത്തും ഒരു പത്ത് നാല് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിൽ എല്ലാവർക്കും എല്ലാവിടെയും ഓരോ ക്ലബ്ബുകൾ ഉണ്ടാവും ആ ക്ലബ്ബിന് തന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ടാവും കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ അതേപോലുള്ള കളികളൊക്കെ കളിക്കാൻ വേണ്ടി അവർക്കൊരു ക്ല ഗ്രൗണ്ടുണ്ടാവും ക്ലബ്ബുകൾക്ക് ക്ലബ്ബ് വൈസായിട്ട് അവർക്ക് എല്ലാ ദിവസവും വൈകുന്നേരത്ത് ഒരു നാല് മണി അഞ്ച് മണിയാവുമ്പോൾ പോയി കളിക്കും ഒരേഴ് മണി ആറര ഏഴ് മണി വരെയൊക്കെ ഇരുട്ടാവണവരെ കളിച്ചിട്ടൊക്കെയാണ് അവരവരിൻ്റെ വിനോദം കണ്ടെത്താറുള്ളത് അത് ഇപ്പോൾ ഫുട്ബോളാണെങ്കിലും ക്രിക്കറ്റാണെങ്കിലും ഇതിന് ക്ലബ്ബ് വൈസ് നമ്മൾ അതിൻ്റെ തലത്തിൽ അതിൻ്റെ മുകൾ പടിന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് മേളകൾ കേരളോത്സവം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ക്ലബ്ബ് വൈസായിട്ട് കളിക്കാറുണ്ട് അപ്പോൾ പുറത്ത് പോയിട്ട് കളിക്കും എന്നിട്ട് കപ്പടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇതിൽ അതൊക്കെ കായിക വിനോദത്തിൽ ഏർപ്പെട്ടതാണ് എല്ലാവരും ഫുട്ബോളും ക്രിക്കറ്റുമാണ് കൂടുതലും പിന്തുടരാറുള്ളത്